എൻ്റെ നാട്ടിൽ എൻ്റെ പ്രദേശത്ത് ഏറ്റവും ആദായം ഉണ്ടാക്കുന്ന വിളകൾ കുരുമുളകും കാപ്പിയുമാണ് കുരുമുളകിന് ഉണങ്ങിയതിന് കടകളിൽ വിപണികളിൽ കിലോയ്ക്ക് ഒരു കിലോയ്ക്ക് എഴുന്നൂറ് രൂപയോളം വിലയുണ്ട് എന്നാൽ മറ്റു ചിലയിടത്ത് ഇതിനു വില വളരെ കുറവായിരുന്നു പക്ഷെ നമ്മുടെ നാട്ടിൽ വില കൂടിയതിനാൽ എല്ലാവരും കുരുമുളക് പറിച്ചു വിൽക്കുവാൻ നിർബന്ധിതരാകുകയും ചെയ്യുകയും ചെയ്യുന്നു പോരത്തതിന് നമ്മുടെ നാട്ടിൽ കൃഷിയായി കൂടുതലും കാപ്പിത്തോട്ടം അതായത് കാപ്പിക്കുരു പൊടിച്ചാണ് കാപ്പി നമ്മൾ കുടിക്കുന്ന കാപ്പി ഉണ്ടാക്കുന്നത് അതിനും ഇവിടെ കൃഷിയുണ്ട് കാപ്പിക്ക് കിലോയ്ക്ക് ഇരുന്നൂറോളം രൂപയോളം വിലയുണ്ട് എസ്റ്റേറ്റുകളിൽ പല സ്ഥലങ്ങളിലും പല ഇനത്തിലുള്ള വിത്തിനങ്ങൾ വിറ്റഴിക്കുകയും ഹൈബ്രിഡ് ഇനം വിത്തുകൾ വിൽക്കുകയും അതിലൂടെ പൈസ ലഭിക്കുകയും ചെയ്യുന്നു